ഞങ്ങളുടെ നാട്ടിലൊരു സാംസ്കാരിക ഉത്സവമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവടത്തേം പോലെ തന്നെ ഓണാഘോഷം തന്നെയാണ് വളരെ അധികം നല്ല രീതീലാണ് ഞങ്ങളോണം ആഘോഷിക്കാറ് എല്ലാ വീട്ടിലും പൂക്കളമിട്ടും അതേപോലെ തന്നെ പൂക്കള മത്സരം നടത്തി കസേരകളി അങ്ങനെ ഒരുപാട് മത്സരങ്ങളൊക്കെ നടത്തി വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങളിവിടെ ഓണമാഘോഷിക്കാറ് അതേപോലെ തന്നെ പുലിക്കളി പുറത്ത്ന്ന് ആൾക്കാർ പുലിക്കളിക്കിറക്കി കുറെ നേരം പുലിക്കളിയൊക്കെ കണ്ട് എല്ലാവരും വളരെ ആവേശപൂർവ്വം സന്തോഷപൂർവ്വം നോക്കി കാണുന്ന ഒരുത്സവമാണ് ഓണം അതേപോലെ തന്നെ അമ്മമാരുടെ തിരുവാതിര എല്ലാം നമുക്ക് എപ്പോഴും സന്തോഷം തരുന്നതാണിരുന്നോണ്ട് പിള്ളേർ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഓരോ മത്സരങ്ങളും ഒരു ദിവസം മുഴുവൻ നമ്മൾ ഈ ആഘോഷത്തിൻ്റെ പിന്നാലെയാണ് ഇനി അവസാനം ഒരോ പായസം ഗ്ലാസ് പായസത്തോട് കൂടി പിരിഞ്ഞ് എല്ലാവരുമായി സന്തോഷം പങ്ക് വെച്ച് വളരെ അധികം ഭംഗിയിലാണ് എല്ലാം നടത്താറുള്ളത്